ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തില് സാങ്കേതിക വിദ്യകളുടെ വളർച്ച വളരെ വലുതാണ് വളരെ കൂടുതലാണ് അതു വിദ്യാർത്ഥികൾക്ക് പഠനത്തിനു വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണു നമ്മുടെ സാങ്കേതികവിദ്യയുടെ വളർച്ച എന്നാല് അതേപോലെ തന്നെ ദുരുപയോഗം ചെയ്യുന്നതും കൂടിയാണ് ഇന്നിപ്പോള് പണ്ടത്തെ കാലത്തെന്നു പറഞ്ഞാള് നമ്മള്ക്കു വിദ്യാഭ്യാസത്തിനുവേണ്ടി ഫോണിന്റേതോ അല്ലെങ്കില് ആ പിന്നെ നെറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്പ്യൂട്ട അങ്ങനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു മരച്ചുവട്ടില് കൊണ്ടിരുത്തി പാഠപുസ്തകം തുറന്നു പഠിപ്പിച്ചു നമ്മുടെ പ്രകൃതി ആസ്വദിച്ച് അങ്ങനൊക്കെയുള്ള ഒരു പഠനമായിരുന്നു ഇന്നിപ്പോള് നമ്മള് ഒരു ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് അവിടെ ഫാനുണ്ട് അതുപോലെതന്നെ ക്യാമറയുണ്ട് അതുപോലെ ഫോണ് നോക്കി പഠിപ്പിക്കാൻ പറ്റും അതുപോലെ പിന്നെ ഡിജിറ്റലൈസ്ഡായിട്ടുള്ള ബോർഡുകള് അങ്ങനെയൊക്കെ ഉള്ള ബോർഡില് ബോർഡ് അതുപോലെതന്നെ മായ്ക്കാൻ ഡസ്റ്ററുകളില്ല അങ്ങനെ ഒരുപാടു സാങ്കേതിക വിദ്യകളുടെ വളർച്ച വളരെയധികം നല്ല രീതിയിലാണു പോകുന്നത് പക്ഷെ അതു വളരെയധികം ചൂഷണം ചെയ്യുന്നതും കൂടി ഉണ്ട് ചുഷണം വളരെയധികം ദുരുപയോഗം ചെയ്യുന്നതും ഉണ്ട് പക്ഷെ ഇന്നു നമ്മുടെ കുട്ടികളുടെ പഠനത്തെ ഫോൺ ഉപയോഗിച്ചിട്ടായാലും മിക്ക ഉള്ള കുട്ടികളിപ്പോള് ക്ലാസ്സിലെടുക്കുന്ന നോട്ട്സുകളാണെങ്കില് വാട്സാപ്പില് ഷെയർ ചെയ്ത് അതില്ക്കൂടെ നമുക്കു പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടര് ഉള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ടു നമുക്കു പഠിക്കാൻ പറ്റുന്നുണ്ട് ഇന്നിപ്പോള് ഈ കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പായാലും ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികള് ചുരുക്കമാണ് എല്ലാവർക്കും ഇപ്പോള് എല്ലാവരും ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് എല്ലാവരും ഡിജിറ്റലൈസ്ഡ് ആായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയില് കുട്ടികൾക്കു പഠനത്തെ നല്ല രീതിയില് മുന്നോട്ടു കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യവും പണ്ടത്തെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോള് ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടു വളരെയധികം പണ്ടത്തെ അപേക്ഷിച്ചു വളരെയധികം നല്ല രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോള് ഇന്നിപ്പോള് കൂടുതലും എന്താണ് പൈസ കൊടുത്തു പഠിക്കാൻ പോകുന്നിടത്താണു കുട്ടികള് കൂടുതലായിട്ടു പോവുന്നത് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണു കുട്ടികളെ ചേർക്കുന്നത് ഫ്ലുവന്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പഴത്തെ കുട്ടികൾക്കു കൊടുക്കുന്നത് പണ്ടത്തെ മലയാള മീഡിയം അങ്ങനെ ഉള്ളതൊന്നും ഇപ്പോഴില്ല ഇപ്പോള് കൂടുതലായിട്ടും കുട്ടികള് കൊണ്ട് രക്ഷിതാക്കളാക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പണ്ടത്തെ പോലെ അങ്ങനവാടികളില് ഇപ്പോള് കുട്ടികളെ ആക്കുന്നില്ല അവർക്കൊരു മൂന്നു നാലു വയസ്സാകുമ്പോള്ത്തന്നെ അവരെ എൽ കെ ജി യു കെ ജി അങ്ങനെ അന്നേരം തൊട്ടേ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു ആ സാഹചര്യമാണ് ഇപ്പോള് സ്കൂളുകളില് ഉള്ളത് ഇപ്പോള് സ്കൂളില് മലയാളം പറയാൻ പാടില്ല ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ ടീച്ചേഴ്സ് ആയാലും അല്ല അതുപോലെതന്നെ പഠിക്കുന്ന സമയങ്ങളില് പഠിക്കുന്ന സമയങ്ങളിൽ അവർക്ക് അന്നന്നു പഠിക്കാനുള്ള കാര്യങ്ങളായാലും റിവിഷന് കാര്യങ്ങള് എല്ലാം തന്നെ ഇപ്പോള് പൊയ്ക്കൊണ്ടിരിക്കുന്നു കുട്ടികളുടെ പഠനം നല്ല രീതിയില്ത്തന്നെ പോവാൻ പറ്റുന്നുണ്ട്